കോട്ടയം ജില്ലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പല റോട്ടിലെ റോഡുകൾ എല്ലാം കിടക്കുന്നത് നമുക്ക് ഒരു പൊതു ഗതാഗതം നടത്താനുള്ള റോഡുകൾ ഒന്നുമില്ല പല ടൈമിലും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും സ്കൂൾ കുട്ടികൾ പോകുന്നത് പോലും നമുക്ക് ഒരു ദാക്ഷിണ്യം ഇല്ലാതെയാണ് റോഡുകളുടെ കിടപ്പ് എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ ഒറവക്കൽ തൊട്ട് കൂഴാലി വരെയുള്ള റോഡുകൾ കണ്ടാൽ മനസ്സിലാകും കുണ്ടും കുഴികളും അല്ലാതെ മണ്ണിട്ട് നികത്തിയതല്ല ടാർ ഇടാ ടാർ ഇട്ടിട്ട് കുണ്ടും കുഴികളുമായിട്ട് മണ്ണിട്ട് നികത്തിയ റോഡുകളാണ് മൊത്തം അല്ലാതെ റീ ടാറിങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഏതോ ഒരു പൈപ്പ് ലൈനിൻ്റെ കാര്യം പറഞ്ഞിട്ട് പകുതി റോഡ് നടുക്ക് കുഴിച്ച് വെച്ചിരിക്കുവാണ് എന്നിട്ട് അതിൻ്റെ മണ്ടക്ക് ടാർ ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ആരും ഒന്നും ഇതുവരെയായിട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ട്രാഫിക്കാണ് കുഞ്ഞു കുഞ്ഞു റോഡുകളും അങ്ങനെ വൺ വേകളും കാര്യമായിട്ടൊന്നുമില്ല ബൈപാസ്സുകൾ നിർമ്മിക്കുന്നില്ല ബൈപാസ്സുകൾ നിർമ്മിച്ചാൽ പോലും അത് ഇതുപോലെ തന്നെ കിടക്കുകയാണ് പിന്നെ ആക്സിഡൻറ്റ് ആകുന്ന മെയിൻ കാരണം കുണ്ടും കുഴികളും കാരണം എതിരെ വരുന്ന വണ്ടികൾ അപ്പുറത്തെ വഴിയിൽ കൂടെ വണ്ടി കയറ്റിയിട്ട് റോങ്ങ് സൈഡാകും റോങ്ങ് സൈഡ് ആകുമ്പത്തേനും ഇപ്പുറത്തെ വണ്ടി സ്പീഡിൽ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ വളവിങ്കൽ ആയിരിക്കും വരുന്നത് അപ്പം അതുപോലെ ആക്സിഡന്റ്റുകൾ ഉണ്ടാകും അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കുണ്ടും കുഴികളും വന്ന് വണ്ടി ടാക്സും അടച്ചിട്ട് വണ്ടി ഇതുപോലെ മുടിഞ്ഞ് പോകുകകൂടി ചെയ്യുമ്പോൾ അവർക്കാണെങ്കിലും ദണ്ണം വരുമ്പോൾ നല്ല വഴിയിൽ കൂടെ കയറ്റും അത് ഇപ്പം കോട്ടയം ജില്ലയുടെ അവസ്ഥയാണ് ഇങ്ങനത്തെ പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് മാൾ അങ്ങനെയില്ല ഓരോ നല്ല സ്ഥലങ്ങളില്ല നമുക്ക് ഒന്ന് എൻ്റർടൈൻ ഫെസിലിറ്റി വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിർമ്മിച്ച് തരുന്നില്ല ഒരു സ്ഥലമുണ്ട് നാല് മണിക്കായിട്ട് അതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും സർക്കാരിൽ നിന്ന് നിയമിച്ച് തരുന്നില്ല ഇപ്പം വൈകിട്ട് വന്നാൽ എവിടെയെങ്കിലും പോയി കുറേ നേരം ഇരിക്കാൻ ആണെങ്കിൽ പോലും പൊതു സ്ഥലങ്ങളില്ല എല്ലാം പ്രൈവറ്റ് പ്രോപർട്ടി അങ്ങനെയാണ് പിന്നെ പോയി ഇരിക്കണമെങ്കിൽ എല്ലായിടത്തും പൈസ കൊടുക്കണം അങ്ങനെ നാല് പേർക്ക് കൂടി ഇരിക്കാൻ പറ്റിയ പൊതു സ്ഥലങ്ങളോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല